വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത് കൃഷിയാണ് കൃഷി ഇവിടെ എല്ലാ ആൾക്കാരും കൃഷിയാണ് ചെയ്യാറ് അതുപോലെത്തന്നെ ഇവിടെ ഉള്ള ഇന്റസ്ട്രി എന്താ വച്ചാൽ തേയില ചായപ്പൊടി വ്യവസായം ആണ് പിന്നെ ഉള്ളത് ഇവിടെ വയനാട്ടിൽ അതുപോലെത്തന്നെ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി അതൊക്കെ ഇവിടെ നമ്മുടെ വയനാട് ജില്ലയിലുണ്ട് പിന്നെ അതുകൊണ്ടുതന്നെ കൃഷിയിലൊക്കെ സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടാണെങ്കിലും കൃഷി തന്നെയാണ് വയനാടിനെ വയനാട് ജില്ലയിൽ ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്നത്